ഹലോ ഡോക്ടർ ആണോ ആ ഞാന് പിന്നെ രണ്ട് ദിവസം മുൻപേ കാണിച്ചിട്ട് ഉണ്ടായിരുന്നേ പിന്നെ പനി ഒക്കെ ആയിട്ട് കാണിച്ചത് ആണെ പനിയും വയറുവേദന ഒക്കെ ആയിരുന്നു അപ്പം പിന്നെ പിന്നെ ഇപ്പം കുറവ് ഇല്ല പാരസിറ്റമോൾ ഒന്നും കുടിച്ചിട്ടും കുറവ് ഇല്ല അപ്പം അത് പറയാന് ആ സ്കാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പം വലിയ കുഴപ്പം ഇല്ലാന്ന് ആണ് പറഞ്ഞത് ആ തൈറോയിഡ് തൈറോയിഡ് ഉണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം യൂറിന് പിന്നെ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ട് ചെറുത് ആയിട്ട് ആണല്ലെ ആ ആ ഡോക്ടറ് ഏത് ടൈമാണ് ഉണ്ടാവുക ആ ഓക്കെ ഓക്കെ റിപ്പോർട്ട് ഒക്കെ കൊണ്ട് വരാൻ ആണോ ആ ഓക്കെ ഓക്കെ ആ ഹാ ഹാ ആ ഇങ്ങനെ ആണ് പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം മൂത്രത്തിൽ പഴുപ്പ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല ഭയങ്കര അടി വയറുവേദന ഒക്കെ ആണ് അപ്പം ഈ പാരസിറ്റമോള് കുടിക്കുമ്പം മാത്രെ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ആണോ എന്ന് അറിയില്ല അപ്പം വേദന കുറയും പിന്നെ അതിൻ്റ ഇത് പോകുമ്പം പിന്നെയും വയറുവേദന തുടങ്ങും ആ ഗുളികയ്ക്ക് ഇത് വന്നു അപ്പം പിന്നെ പാരസിറ്റമോള് പനിയും അങ്ങനെ വലിയ കുറവ് ഇല്ല പക്ഷെ ജലദോഷം കാര്യങ്ങൾ ഒന്നും ഇല്ല പക്ഷെ പനി മാത്രം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഭയങ്കര പണിയാണ്

ഓക്കെ ഓക്കെ ആ വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര വയറുവേദന ആണ് സഹിക്കാൻ പറ്റാത്തത് അപ്പം ഞാന് ഡോക്ടറ് ഉണ്ടാകുവൊന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു അപ്പം എനിക്ക് പിന്നെ റിപ്പോർട്ടും കാര്യങ്ങൾ ഒക്കെ എൻ്റെ കൈയ്യിൽ ഉണ്ട് അപ്പം എപ്പഴാണ് വരണ്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്

ആ ആ ആ അതെ അതെ അന്ന് ഞാൻ ഹോസ്പിറ്റൽ ആയ അന്ന് കാണിച്ചതാണ് അന്ന് എനിക്ക് കുറച്ച് ജലദോഷം കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പഴാണ് എനിക്ക് പിന്നെ വയറുവേദന തുടങ്ങിയത് ഗുളിക ഒന്ന് കുടിക്കാൻ തുടങ്ങിയപ്പം ആണ് പിന്നെ വയറുവേദന ഭയങ്കര ആയിട്ട് തുടങ്ങി പാരസിറ്റമോള് ഉള്ളത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുവെന്നേ ഉള്ളൂ ആ അങ്ങനെ ആണെങ്കില് ബുക്ക് ചെയ്തിട്ട് വരണോ ഡോക്ടറെ കാണിക്കണമെങ്കിൽ അവിടെ പറഞ്ഞ് ബുക്ക് ചെയ്താൽ മതി അല്ലെ ആ തിങ്കള് തൊട്ട് വെള്ളി വെരെ ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ടോ ആ അതെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്ത് ആ അങ്ങനെ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരാം ഇത് പിന്നെ ഇനി വരുന്ന തിങ്കളാഴ്ച്ച വരാം ആ ഓക്കെ ഓക്കെ